സംസ്ഥാനത്തെ പ്രധാന മതപരമായ ലാൻഡ്മാർക്കുകൾ എന്നു പറയുമ്പോഴ്ത്തേക്കും തിരുവനന്തപുരം ജില്ലയിലെ വടക്ക് തെക്ക് ഭാഗത്താണ് പത്മനാഭസ്വാമിക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ കോട്ടയത്ത് ആണ് വേളാം വേളാങ്കണ്ണി പള്ളി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ കണ്ണൂർ ആണ് പറശ്ശിനികടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിന്നെ തൃശൂരാണ് വടക്കുംനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടം ഭാഗത്താണ് ബീമാപള്ളി സ്ഥിതിചെയ്യുന്നത് അതുപോലെ വയനാട് സീതാദേവി ടെമ്പിളുണ്ട് പിന്നെ കോട്ടയം അല്ല കൊല്ലം കൊല്ലത്ത് ശാന്തിഗിരി ആശ്രമം ഇത്രയുമാണ് സംസ്ഥാനത്ത് പ്രധാന മതപരമായ ലാൻഡ്മാർക് എന്ന് പറയുന്നത്